ആ ഞങ്ങളുടെ പ്രദേശത്ത് കുറ്റകൃത്യങ്ങളും അപകടങ്ങളും കൂടുതലാണ് കാരണമെന്താ വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ പല സ്ഥലങ്ങളിലും ഗുണ്ടാവിളയാട്ടം അങ്ങനത്തെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ അങ്ങനത്തെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് പക്ഷെ നമ്മളൊന്നും അതങ്ങനെ പുറത്തേക്കങ്ങനെ അറിയുന്നില്ല അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേയുള്ളൂ കൂടുതലായിട്ടും നമ്മളെ ഇപ്പം തന്നെ ജോളി ജോളിയെന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരി കുറേ ആൾക്കാരെ കൊന്ന് പക്ഷെ അതങ്ങനെ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് ഇവർക്കൊരു ഡൗട്ട് തോന്നിയിട്ട് അവരുടെ കുടുംബത്തിൽ തന്നെ ഡൗട്ട് തോന്നിയിട്ടാണ് അവർ ഡി എൻ എ പരിശോധിക്കാനൊക്കെ അയച്ചുകൊടുത്തത് അങ്ങനെ നോക്കുമ്പോഴാണ് കൊന്നതാണെന്നൊക്കെ മനസ്സിലായത് അത് പരമ്പര കൊല അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടുള്ളത് അത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലാണ് മെയിനായിട്ട് ഉള്ളത് അതായത് കൂടത്തായി അങ്ങനത്തെ സ്ഥലങ്ങൾ പല രീതിലും അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഇഷ്ടംപോലെയുണ്ട് പക്ഷെ നമ്മളിതൊന്നും അറിയുന്നില്ലയെന്നു മാത്രമേ ഉള്ളൂ പിന്നെയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അപകടങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ട്രാഫിക് കണ്ട്രോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും കോഴിക്കോട് ജില്ലയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് കാരണം നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ സാധിക്കുന്നത്